ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഒരു മാറ്റം ഈ അടുത്ത വർഷങ്ങളിൽ ഉണ്ടായിട്ട് ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് സാമ്പത്തിക സാമ്പത്തിക വ്യവസ്ഥ വളരെ ഏറെ വളർച്ച പ്രാപിച്ചു അത്പോലെ വികസിക്കേം ചെയ്തു സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രധാനമായിട്ടും കാരണമാകുന്നത് വ്യവസായങ്ങളാണ് അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുടെ സംഭാവനയും ചെറുതല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥക്ക് പ്രധാനമായിട്ട് കാരണമാകുന്ന വ്യവസായങ്ങൾ അയണ് ആൻ സ്റ്റീൽ ഇൻഡസ്ട്രീയെ അത്പോലെ തന്നെ വാഹന വിപണി ഓഹരി വിപണി അത്പോലെ മറ്റുള്ള വ്യവസായങ്ങൾ കൽക്കരി ഇന്ധനം ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി ഏറെ വ്യവസായങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ വ്യവസായങ്ങളിലൂടെ ഒത്തിരി ഏറെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും ഒത്തിരി ഏറെ നവീനമായ കാര്യ ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെടുകയും ഊർജ്ജം ഉണ്ടാക്കുകയും ബഹിരാകാശ മേഖലയിൽ പോലും വലിയ കുതിച്ച് ചാട്ടമുണ്ടാവുകയും അത്പോലെ തന്നെ സാങ്കേതിക വിദ്യയിലും ശാസ്ത്രരംഗത്തും എല്ലാം സാങ്കേതിക വിദ്യയിലും എല്ലാം ഒത്തിരി ഏറെ മാറ്റങ്ങളും വളർച്ചയും എല്ലാം ഈ അടുത്ത വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് വലിയ ഒരു വസ്തുതയാണ് ഇപ്പം ഈ പ്രധാനപ്പെട്ട വളർച്ചക്ക് കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളാണ് ഈ വ്യവസായങ്ങളിലൂടെ ആർജ്ജിക്കുന്ന സമ്പത്ത് അത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ വളർത്തുകയും അത്പോലെ തന്നെ സാമ്പത്തിക വ്യവസ്ഥ വികസിക്കേം ചെയ്തു അങ്ങനെ ഇന്ത്യ വലിയ ഒരു സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വസ്തുത ഇങ്ങനേയ് കോടികളുടെ ഒക്കെ വിപണനം വിപണനം നടക്കുമ്പോൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ കൈമാറേണ്ടി വരുമ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു കൈമാറ്റ വ്യവസ്ഥയിൽ ബാങ്കിങ്ങ് മേഖല നടത്തുന്ന സംഭാവന ചെറുത് ഒന്നുമല്ല നേരത്തെ ഒക്കെ ഈ പൈസ ക്യാഷായ്ട്ട് കൊണ്ട് നടന്ന് അത് മറ്റൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു ശ്രമകരമായ കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങ് അത്പോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റെല്ലാം പണം ഇടപാടുകൾ നടത്തുന്നത് വളരെ സുഖമമായിട്ട് മാറ്റി ഇപ്പോൾ ബാങ്ക്കളിൽ നിന്നും ബാങ്ക്കളിലേക്ക് അല്ലെങ്കിൽ ഒരക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പൈസ കൈമാറുന്നതിന് വളരെ എളുപ്പമുള്ള മാർഗ്ഗമാണ് ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങ് ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ നമുക്ക് നമ്മുടെ കസ്റ്റമറിന് അല്ലെങ്കിൽ നമ്മുടെ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് മാറാനായിട്ട് കഴിയുന്നു ഒരു വലിയ ഒരു എളുപ്പമുള്ള മാർഗ്ഗമാണ് എന്നുള്ളത് ആണൊരു വസ്തുത അത്പോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റാണെങ്കിലും വളരെ വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗം തന്നെയാണ് ഇപ്പോൾ പണം ക്യാഷായിട്ട് കൊണ്ട് നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും അത് മറ്റുള്ളവർ അപഹരിച്ചോണ്ട് പോകുന്നതിൽ നിന്ന് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും എല്ലാം ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് നമ്മെ സഹായിക്കിന്നു എന്നുള്ളത് ഒരു വലിയ വസ്തുത തന്നെയാണ് അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ സാമ്പത്തിക മേഖല വളരെ എളുപ്പമുള്ളതും പണം കൈമാറ്റം വളരെ എളുപ്പമുള്ളതായിട്ട് മാറുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ള സമ്പദ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വളർച്ചയിൽ ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങും അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റുമെല്ലാം വളരെ ഏറെ വലിയ സഹായമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു വസ്തുത

ഇപ്പോൾ ഈ വ്യവസായങ്ങളുടെ ആർജിച്ച ആ പുരോഗതി അത് അതിന് കാരണമായിട്ട് മാറിയത് ഇൻറ്റർനെറ്റ് ബാങ്കിങ്ങാണ് എന്നുള്ളതും നമുക്ക് ശ്രദ്ധേയമായൊരു കാര്യമാണ്